ഞാൻഎൻ്റെ ജീവിതത്തീന്ന് പഠിച്ച എറ്റവും വലിയ പാഠങ്ങളാണ് നമ്മള് നമ്മളെ അയൽപക്കകാരെയോ അതുപോൽ തന്നെ സുഹൃത്തുക്കളെ സ്നേഹിക്കുകാ അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അത് ഇന്നല്ലങ്കിൽ നാളെ നമ്മളെ വളരെയധികം സഹായിക്കും നമ്മൾ ആപത്ത് ഘട്ടങ്ങളിൽ അവർക്ക് എന്തേലും സഹായം ചെയ്തു കൊടുത്താൽ നമ്മടെ ആപത്ത് ഘട്ടങ്ങളിലും അവർ തിരിച്ച് നമ്മൾക്ക് സഹായമായിട്ട് നിൽക്കും